ഈ ഫോട്ടോഗ്രാഫിയെ പറ്റിയുള്ള ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കാരണം എനിക്ക് ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖല തന്നെയാണ് നമുക്ക് ഫോട്ടോഗ്രാഫി അങ്ങനെ പരിശീലനം അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല

നല്ലൊരു ഐഡിയ വേണം ഇപ്പോള് എന്തെടുക്കാനായിട്ടും ഒരു ഫോട്ടോ നമ്മള് ക്ലിക്കെയ്യുന്നതിനു മുൻപ് ആ ഒരു ഫ്രെയിമിനെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നമ്മുടെ ഉള്ളില് അത് എടുക്കുന്നതിനു മുമ്പ് ആ ഫോട്ടോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതു നല്ല രീതിക്ക് നമുക്കാ ഫോട്ടോ എടുക്കാനായിട്ടു പറ്റും ഒരു ചിത്രം ഫോട്ടോ ക്ലിക്ക് നമ്മുടെ ക്യാമറയില് മൂന്നാമത്തെ കണ്ണായ ക്യാമറയിൽ പകർത്തുന്നതിനുമുൻപ് നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക ഒരു ഉള്ളില് ആ ഒരു ചിത്രം അതിനു മുമ്പ് നമ്മള് കാണുമ്പോളാണ് നല്ലൊരു ഫോട്ടോ നമുക്ക് എടുക്കാനായിട്ടു പറ്റും അതില് എൻ്റെ ഇത് വ്യക്തിപരമായ ഇത് പറയുന്നത് അതിനു നല്ല കൂടിയ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളുടെ ആവശ്യമില്ല അത് അത് ഒരു സ്ഥലത്ത് നില്ക്കട്ടെ എങ്കിലും ഒരു സാധ ഒരു കുഞ്ഞു ക്യാമറ അല്ലെങ്കില് കുഞ്ഞൊരു ഫോണില് തന്നെ ഒരു ചെറിയ കീ പാഡ് ഫോണില്ത്തന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത് നമുക്ക് നല്ല ഫോട്ടോ നല്ലൊരു ഫോട്ടോ എടുക്കാനായിട്ട് കാരണം എനിക്ക് പണ്ടു മുതല് തൊട്ടേ ഭയങ്കര ക്രേസായിട്ടുള്ളൊരു കാര്യമാണ് ഫോട്ടോ എടുക്കുന്നത് അതായത് ഈ മേഘത്തിൻ്റെ ഫോട്ടോ അത് എനിക്ക് ആളുകളുടെ ഫോട്ടോ അങ്ങനെ പോർട്രേറ്റ് ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ അറിയത്തില്ലെങ്കിലും ഈ മേഘത്തിൻ്റെ ഫോട്ടോ ലാൻഡ്സ്കേപ്പ് മാക്രോ ഫോട്ടോഗ്രഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ കുറേ എടുുത്തിട്ടുമുണ്ട് അത് ഇപ്പോള് എനിക്ക് പല അപ്രീസിയേഷനും അങ്ങനെ ഫോട്ടോ എടുത്ത് കൂട്ടുകാരും എൻ്റെ വീട്ടുകാരും അങ്ങനെ ബന്ധുക്കളും പിന്നെ കുറേ പേര് ഫോട്ടോ നല്ല ഫോട്ടോയാണ് നല്ല ഫോട്ടോ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കുന്നതിലും കൂടുതലിഷ്ടം അത് എഡിറ്റെയ്യാനായിട്ടാണ് ഇഷ്ടം എനിക്ക് എഡിറ്റെയ്യുന്നതൊക്കെ എഡിറ്റെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറേ സമയം ഇരുന്ന് ഞാന് എഡിറ്റൊക്കെ ചെയ്യുന്നത് ചെയ്തിട്ടാണ് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കില് ഒരു ഫോട്ടോ എവിടേലും ഇടുന്നത് ഇപ്പോള് എനിക്കൊരു ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കില് ഇപ്പോള് പുതിയ രീതിയിലാണെങ്കില് പണ്ടൊക്കെയാണെങ്കില് നേരെ ഫോട്ടോ എന്തെങ്കിലും ഒരു ഫിൽട്ടറിട്ടിട്ട് അല്ലെങ്കിലെന്തേലും ഒരു ഇതു വച്ചിട്ട് അങ്ങിടുവായിരുന്നു ഇപ്പോഴാണെങ്കില് ഞാൻ ചെയ്യുന്നത് ഇപ്പോഴാണെങ്കില് ചെയ്യുന്നത് എന്നു പറഞ്ഞാല് നേരെ അഡോബ് ഫയർഫ്ലൈ എന്നു പറയുന്നൊരു സൈറ്റുണ്ട് അപ്പോള് അതിന്റകത്താണെങ്കില് അതിൻ്റത്താണെങ്കില് നേരെ അപ്ലോഡെയ്യും നേരെ ഇത് അപ്ലോഡ് ചെയ്തിട്ട് കുറേ മാനുപ്പുലേഷൻസ് വരുത്തും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇറെയ്സ് ചെയ്യാനായിട്ട് പറ്റും പല കാര്യങ്ങളൊക്കെ നമുക്കു മാറ്റാനായിട്ടും പറ്റും എല്ലാം ചെയ്യാനായിട്ടൊക്കെ പറ്റും അതുപോലുള്ള എൻ്റെ ഏറ്റവും ആരാണ് നിങ്ങളുടെ പ്രേരണ എൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പ്രേരണ ഉള്ളില്നിന്നുതന്നെ എൻ്റെ സെൽഫായിട്ടുള്ളൊരു പ്രേരണയാണ് അതുപോല തന്നെ ഈ ഇൻസ്റ്റാഗ്രാമില് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഫോട്ടോ എടുക്കുന്ന ഇൻഫ്ലൂവൻസേഴ്സ് ഉണ്ട് അവരൊക്കെ മൂലം കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല നല്ല ഐഡിയാസ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല നല്ല ഐഡിയാസൊക്കെ ലഭിക്കാനായിട്ട് ഇടയാവും അവര് മൂലം അത് എനിക്കിപ്പോള് ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് ഭയങ്കര പ്പെട്ടൊരു മേഖല തന്നെയാണ് ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫർ നല്ലൊരു എനിക്കു വലിയ ഒരു ആഗ്രഹം നല്ലൊരു ഫോൺ അല്ല നല്ലൊരു ക്യാമറ എടുത്ത് നല്ലൊരു ഫോട്ടോഗ്രാഫ് നല്ല ഫോട്ടോസ് എടുക്കുക എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ് നല്ല ഫോട്ടോ എടുക്കുക നല്ല നല്ല കാര്യങ്ങള് ചെയ്യുക എല്ലാം അത്രേയുള്ളു